ഹലോ ആ ആ പറഞ്ഞോ ബ്രോ

വീടു പണിക്ക് അല്ലേ ആ ആയിക്കോട്ടെ ഓ ഓക്കേ ഓക്കേ ഓഡറ് കൊടുക്കാനല്ലേ ആ ഓക്കേ ഓക്കേ അത് കൺഫോം ചെയ്യാം കേട്ടോ എന്നത്തേക്കാണ് നമുക്ക് എന്നത്തേക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുക വേഗം തന്നെ വേണമല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് നമുക്കൊരു

ആ ഫുള്ള് വൈറ്റാണോ ഉദ്ദേശിക്കുന്നത് ആ ഔട്ട്സൈഡല്ലേ ആ ഓക്കേ ഓക്കേ ലൈറ്റ് ബ്ലൂ വരുന്ന രീതിയല്ലേ

ആ ഓക്കേ ഓക്കേ ഇൻ്റീരിയർ വർക്കിൽ നമുക്ക് വേറെയെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഫുള്ളായിട്ടുള്ളത്

മിക്സഡ് കളറാണ് അല്ലേ ഓ അത് നമുക്ക് ചെയ്തുതരാം ഓ ആയിക്കോട്ടെ ആ അത് ഫുള്ളായിട്ടങ്ങനെ ചെയ്തുതരാം ആ ഇത് ബാക്കി വർക്ക് എന്നാണ് കഴിയുന്നത് അഞ്ചു ദിവസം ഉണ്ടാവും അല്ലെ അപ്പോൾ നമുക്കങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച്ചതൊട്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വന്നേക്കാം ചിലവ് ഇപ്പോൾ നമുക്കൊരു തൗസൻഡ് വെച്ച് മണ്ടേ ഉണ്ടാവും

മൂന്നു പേരുണ്ടാവും

അതായത് ഒക്കെ ഓ ആയിക്കോട്ടെ എന്തായാലും നമ്മൾ മറ്റന്നാളല്ലെങ്കിൽ നാളെ ഞാൻ നാളെ എന്തായാലും വരാം നാളെ ഒരുച്ചയ്ക്ക് മുമ്പേ വന്ന് സൈറ്റ് കാണാം ആ ആയിക്കോട്ടെ ഓക്കേ ആ ശരി